ഇപ്പം പണ്ടത്തെ തലമുറേനെ കുറിച്ച് പറയാണെങ്കിൽ നമുക്ക് വേണെങ്കിൽ പറയാം അതായത് അധികം അതായതിപ്പം കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്കാണേ ഓവർ ഫ്രീഡം ഇല്ലാ പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണം പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഇപ്പോൾ ഭാര്യയാണെങ്കിൽ ഭർത്താവാണെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു തലമുറ തന്നെയാണ് പണ്ടത്തെ ഈ സാങ്കേതിക വിദ്യയുടെ ലോകമായിരുന്നില്ല പണ്ട് അതുകൊണ്ട് തന്നെ പരസ്പരം സംസാരിച്ചും ഇടപഴകിയും ജീവിക്കുന്നൊരു കാലം തന്നെയാണ് നമ്മടെ പഴയ തലമുറയയെന്ന് പറയാണെങ്കിൽ ഒപ്പം അവർക്ക് ഒരുപാട് കുട്ടികൾ കാര്യങ്ങൾ ഒക്കെ ഉള്ള ഒരു കാലം തന്നെയായിരുന്നു പക്ഷെ യുവ തലമുറയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം പറയാം നമ്മടെ അമ്മമാർ കാര്യങ്ങൾ അപ്പം നമ്മൾ യുവ തലമുറയിലുള്ള ആൾക്കാരാണ് അല്ല മധ്യ തലമുറ മധ്യ തലമുറയുടെ കാര്യം പറയാണെങ്കിൽ അവരിപ്പോൾ നമ്മടെ പിന്നെ അതായത് അമ്മമാരായ ഒരു കാലത്ത് അപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മടെ അമ്മമാരെ കാലത്തക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഒരു വീട്ടിൽ രണ്ട് കുട്ടികൾ അല്ലെങ്കിൽ ഒരു കുട്ടികൾ മൂന്ന് കുട്ടികൾ അതിൽ കൂടുതലുണ്ടാവില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫോണൊന്നും യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യമൊക്കെ കോളെയ്യാനും എല്ലാത്തിനും ഫോൺ യൂസെയ്യുന്ന ഒരു കാലമാണ് ഇപ്പത്തെ അതായത് ഇന്നത്തെ യുവ തലമുറൻ്റെ അത്ര അഡിക്റ്റല്ലാ ഫോണിൽ ഏറ്റ അതായത് എന്നെച്ചാൽ സാങ്കേതിക വിദ്യയുടെ കാലമാണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു അതായത് യാതൊരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലമാണ് ഇന്നത്തെ കാലം അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലവും കൂടിയാണ് നമ്മടെ യുവ തലമുറയുടെ കാലം